ഹലോ ഫാത്തിമാ റെസ്റ്റൊറൻ്റ അല്ലെ അയോ ഓ ഞാൻ ജാസ്മിൻ ഞാൻ ഒരു ഓർഡർ ചെയ്തിരുന്നു എന്ന ഹോട്ട് കോഫിയാണ് ഓഡ്റ് ചെയ്തത് എൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ വിമലാ കോളേജ് ഹോസ്റ്റലിലാണ് പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഞാനത് പറയാനാണ് വിളിച്ചത് എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് എനിക്കിപ്പം തീരെ സുഖമില്ല അപ്പം എനിക്ക് ചൂടോടെ ഒക്കെ ഹോട്ട് കോഫി കിട്ടണമെന്നാണ് ആഗ്രഹം അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് എന്താണ് ചൂടോടെ ഒക്കെ അത് എത്തിക്കണം വീട്ടിലെത്തിക്കണം അതിനുള്ള പാക്കേജിൻ്റെ കാര്യത്തിലാണ് എനിക്ക് പറയാനുള്ളത് നല്ല ഹോട്ട് ബാഗിലോ എങ്ങനെ വ എന്തെങ്കിലും ചൂടാറാത്ത രീതിക്കുള്ള പാത്രത്തിൽ ആക്കിയിട്ട് എനിക്ക് കൊണ്ടുവരണം അത് പറയാനാണ് ഞാനിപ്പം വിളിച്ചത് പിന്നെ ഞാൻ മുന്നെ ഞാൻ ഇവിടുന്ന് കുറെ ഫുഡ്ഡ് വങ്ങിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല നീ കഴിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രെൻഡ്സിനൊടൊക്കെ ഞാൻ പറയല്ണ്ട് ഫാത്തിമാ റെസ്റ്റോറൻറ്റിൽ പോയി വാങ്ങണമെന്ന് കാരണം അവിടത്തെ ഫുഡ്ഡ് കാര്യങ്ങൾ പാക്കേജിങ് എക്സ്പ്പെഷ്യലീ ക്ലീനിങ് എന്താണ് ഹൈജീനിക് എല്ലാം നല്ലതാണ് നിങ്ങളെ ഫാത്തിമാ റെസ്റ്റോറൻറ്റിടിൻ്റെ അതുകൊണ്ടാണ് ഞാന് പിന്നേയും പിന്നേയും ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്യാനും എനിക്ക് എൻ്റെ വീട്ടില് ഞാനുണ്ടാക്കുന്നത് പോലെ എനിക്കുണ്ടാക്കാൻ പറ്റുന്ന രീതിക്ക് ആണ് നിങ്ങളുടെ അവിടെ സർവീസ്സായാലും അവിടെ കസ്റ്റമർനെ കേയ്റ് ചെയ്യുന്നതായാലും എല്ലായിതും സർവീസ് എല്ലായിതും എനിക്കിഷ്ദമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഇവിടുന്ന് ഓർഡർ ചെയ്തത് പിന്നെ അത് മാത്രല്ല വേറൊര് കാര്യം ഇനി ഞാ ഇപ്പൊഴും ഡയബറ്റീസ്സാണ് എനിക്ക് ഉണ്ട് ഡയബറ്റീസ്സ് ഉണ്ട് അപ്പം ഷുഗറ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക അല്ലെങ്കില് സുഗറ് ഞാ ഇടണ്ട ഞാ ഇവിടെ വന്നിട്ട് ഷുഗറിട്ടോളാം പ്രത്യേകിച്ച് എനക്ക് പറയാനുള്ളത് ഹോട്ട് കോഫി ആയതുകൊണ്ട് ചൂട് ആറാതെ ഒന്ന് എത്തിക്കുക കാരണം അത്രയും ടൈം എടുക്കുന്നുണ്ട് കാരണം ഹോ റെസ്റ്റോറൻറ്റ് ഇപ്പം എൻ്റെ വീട്ടിലേക്ക് വരിക എന്നാണെങ്കിൽ ഒര് മുപ്പത് മിൻറ്റോളം എടുക്കുന്നുണ്ട് അപ്പം അതിനിടയിൽ ചൂടാറരുത് അപ്പം അതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നല്ലൊരു പാക്കേജിങ് നിങ്ങൾ കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്താണ് അങ്ങനാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ അധികം സന്തോഷം